ഹലോ ഇത് ക്യാബ് ഏജൻസി അല്ലെ ഞാൻ ഇന്നലെ അവിടെ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു എറണാകുളത്തേക്ക് അ അതെ അതെ അതെ അ അ എൻറെ പേര് അജയ് ആ അതെ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അ പറ ആ ഓക്കേ ഓക്കേ പറയട്ടെ ഞാൻ എന്താണന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഇല്ലേ പുള്ളി മാസ്ക് ധരിക്കാതെയാണ് വന്നത് ഒന്നാമത് കോവിഡിന്റെ ഒരു സാഹചര്യം ആണുള്ളത് അപ്പോൾ പുള്ളി മാസ്ക് ധരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ആ പുള്ളിയോട് ഒന്ന് മാസ്ക് ധരിക്കാൻ എങ്കിലും പറയുക പിന്നെ വണ്ടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വൃത്തിഹീനമായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു എനിക്ക് കിട്ടിയത് കാരണം എന്താന്നാ സീറ്റ് എല്ലാം മുഴുവൻ കീറി ഏ എന്തൊക്കെയോ ഒരു നമുക്ക് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയിൽ അല്ല നിങ്ങൾ ഒന്ന് ആ ഡ്രൈവർ മര്യാദയ്ക്ക് വണ്ടിയോടിക്കുന്നില്ല അതൊന്ന് മാസ്ക് ധരിക്കുന്നില്ല ഇതൊക്കെ ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാരണം ഒന്നാമത് കോവിഡിന്റെ സാഹചര്യത്തിൽ മാസ്ക് ധരിക്കാണ്ട് വണ്ടിയോടിക്കാൻ പാടില്ല കാരണം ഞങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്നോ പിന്നെ അവ അയാൾ എവിടെ നിന്നാണ് വന്നതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ് ഈ മാസ്ക് ധരിക്കാത്തതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഒരു സമയങ്ങളിലൊക്കെ മാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഏ ധരിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ല എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു ഫീഡ് ബാക്ക് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ആ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫീഡ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കേ ഓക്കേ ഇനി മേ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഏജൻസിക്ക് തന്നെയാണ് നല്ലത്